ഒരുപാട് വിനോദങ്ങളിൽ ഏർപ്പെടാറുണ്ട് സൈക്ലിങ്ങ് അതുപോലെത്തന്നെ നീന്താനൊക്കെ ഇപ്പോഴും ഇഷ്ടമാണ് അപ്പോൾ അത് അതിനൊക്കെ പോകാറുണ്ട് പിന്നെ ഒഴിവ് സമയങ്ങളിൽ ഇപ്പോൾ എന്തെങ്കിലും ലീവൊക്കെ കിട്ടാനുണ്ടെങ്കിൽ കിട്ടാനുണ്ടെങ്കിൽ ടി വി കണ്ടിട്ടിരിക്കാം മൊബൈൽ ഫോണിലോരോന്ന് നോക്കിയിരിക്കാം പാട്ട് കേൾക്കാനിഷ്ടമാണ് പിന്നെ പണ്ട് മുതല് ഉള്ള ഒരു പാഷനായിരുന്നു നൃത്തം നൃത്തം കളിക്കും നൃത്തം ആസ്വദിക്കാറുണ്ട് നൃത്തം പഠിക്കാൻ പോകാറുണ്ട് ഷട്ടിൽ ബാറ്റ് കളിക്കാറുണ്ട് ഇതൊക്കെ ഇപ്പോഴും ഞാൻ ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ എൻറെ ഫിസിക്കലി ഞാൻ ഓക്കെ അല്ലായെന്നുണ്ടെങ്കിൽ ബുക്സുകളൊക്കെ എടുത്തു വായിക്കാറുണ്ട് കുറെ നല്ലരീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ സമയം കളയും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ചെയ്യാൻ എനിക്കിഷ്ടമാണ് പല പല തുണികളെടുത്തിട്ട് നമ്മൾ മോഡേൺ മോഡേണായിട്ട് പല രീതിയിൽ അടിച്ചു നോക്കും എന്നിട്ട് നല്ല രീതിയിലുള്ള ഡ്രെസ്സുകളൊക്കെ അടിച്ചു അതില് ഞാൻ തന്നെ ഹാൻഡ് വർക്കുകൾ കൊടുത്ത് ഒരു ഡിസൈനൊക്കെ ഉണ്ടാക്കി ഒരു നല്ല രീതിയിൽ ഒരു ഉടുപ്പൊക്കെ ഉണ്ടാക്കി എടുക്കാറുണ്ട്